ഹോസ്പിറ്റലിപ്പന്താ ആശുപത്രി നടപ്പതുണ്ട് നടത്തിപ്പിനെക്കുറിച്ച് പറയുവാണെങ്കിൽ തന്നെ എന്താ പറയാ അവിടുത്തെ പ്രവേശനോം ചികിത്സേക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു നമുക്ക് ആവശ്യമുള്ള ചികിത്സേം കാര്യങ്ങളും ഫുഡ് ഭക്ഷണോം എല്ലാം ഹോസ്പിറ്റലിൽ നമുക്ക് അവൈലബിൾ ആണ് ഇപ്പം എൻ്റെ സഹായിക്കാൻ ജീവനക്കാർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ ഉണ്ട് കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഇപ്പം ഏന്തെലും പ്രശ്നം വരുവാണെങ്കിൽ തന്നെ നമുക്ക് എന്താ പറയാ നമ്മുടെ അയൽവക്കക്കാർ തന്നെയാണ് നമ്മളെ എല്ലാത്തിനും സഹായിക്കുന്നത് കാരണം ഇപ്പം നമുക്ക് വേഗം തലകറക്കോം നെഞ്ച് വേദന അങ്ങനെ എന്തെങ്കിലുവൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അവർ തന്നെയാണ് നമ്മളെ ഓടിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടു പോയി കാണിക്കുന്നതൊക്കെ പിന്നെ അത്യാവശ്യം സഹായിക്കാൻ വേണ്ടി എല്ലാവരും നമുക്കിവിടെ ഉണ്ട് എന്ന് പറയുന്നതാണ് പിന്നെ ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുവാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല നല്ല കെയറിങ്ങും നല്ല നമ്മളെ നല്ലോണം പരിപാലിക്കുന്ന ഒരു ഹോസ്പിറ്റലിലേക്കാണ് നമുക്കിവിടെ അടുത്ത് ഉള്ളത് ഉള്ളത് ഉള്ളത് എന്നുള്ളതാണ് മാത്രമല്ല ഹോ ഹോസ്പിറ്റല് കയറി ഇറങ്ങി നല്ല പൈസ ആകിലും അത്യാവശ്യം നല്ല ചികിത്സേം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഹോസ്പിറ്റൽ നടക്കുന്നത് നമുക്ക് നല്ല പ്രവേശനോം നമുക്ക് നല്ല സുഖമായിട്ടുള്ള നല്ല നല്ല ഭക്ഷണോം നല്ല മരുന്നും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമ്മളവിടെ ചെന്ന് നമ്മുടെ അസുഖം വേഗമൊന്ന് കുറയും അതുപോലെത്തന്നെ നല്ല കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ഹോസ്പിറ്റല് ഉണ്ടാകുന്നതാണ് അതെ ഹോസ്പിറ്റല് നടത്തിപ്പ് നടത്തിപ്പി നടത്തിപ്പിനെ പറ്റി പറയുവാണെങ്കിൽ തന്നെ എന്താ പറയാ അത്യാവശ്യം നല്ല റേറ്റിങ്ങിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മളെ സഹായിക്കാനും കുറെ പേരെക്കെയിണ്ട് അങ്ങനെക്കെ നല്ല ഇതിലായിട്ട് തന്നെയാണ് ഹോസ്പിറ്റലിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്